ഞാൻ എൻ്റെ നാട്ടിലാണെങ്കിൽ ക്ലബ്ബുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ക്ലബ്ബുകൾ വഴി ഇവിടെ ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ മത്സരങ്ങൾ നടത്താറുണ്ട് അതിൻ്റകത്ത് എന്തേലും വീഴ്ച്ച വരുത്തിയാൽ നമ്മൾ അതിൻ്റകത്ത് ഭാരവാഹികളെ അറിയിക്കും ഭാരവാഹികളുടെ ഭാരവാഹികളുടെ അടുത്തു നിന്ന് അതിനു വേണ്ട എന്തോ അതിൻ്റെ എതിരായിട്ട് നടപടി സ്വീകരിക്കും അഥവാ അങ്ങോട്ടുമിങ്ങോട്ടും എന്തേലും അക്രമണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ടീമാണ് ആക്രമം നടത്തുന്നത് അതേപോലെ നമ്മൾ അവർ ഭാരവാഹികൾ അതിന് അവർ അടുത്ത മൂന്ന് നാല് കളികളിൽ നിന്നും അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ പൈസ പരമായി ഇപ്പം ക്ലബ്ബുകൾ പല രീതിയിൽ പൈസ പിരിച്ച് ഇത് ഫുട്ബോളിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നേടി അതിൻ്റെ അകത്തെ എന്തേലും അഴിമതി ഒക്കെ നടത്തുവാണേലും നമ്മൾ അവർ ഭാരവാഹികളോ അല്ലെങ്കിൽ അതിനു വേണ്ടപ്പെട്ട ആൾക്കാരെ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പിന്നേ ഇവിടെ ഈയിടെ ആണെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് നടത്തി അതിൻ്റകത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഫുട്ബോൾ ടീമിലെ ആൾക്കാർ നമ്മുടെ ടീമിലുള്ള പിള്ളേരെ പിടിച്ച് തള്ളുകയും അവരുടെ അത് ആതിൻ്റെ അകത്ത് ഒരു കൃത്രിമം കാണിക്കാൻ വേണ്ടി അവരെ പിടിച്ചു തള്ളി ഏക്കും പക്ഷേ അത് അവരെ രണ്ടു കൂട്ടരേം മീൻസ് ആ ആ ആ ടെസ്റ്റിൽ നിന്ന് രണ്ടു പേരെയും ഒഴിവാക്കി പിന്നെ ഇനി പറഞ്ഞു പിന്നെ വേറെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടു പേർക്കും കൂടെ വീണ്ടും ഒരു മാച്ച് നടത്താനുള്ള അങ്ങനെ എന്തേൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അവരും നല്ല ഒരു സപ്പോട്ടീവ് ആണ് അവരാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ പിന്നെ ടീമാണെങ്കിൽ അവർക്ക് മാത്രമേ സപ്പോട്ട് ചെയ്യും എന്നല്ല ഏത് ടീമും ഈ കള്ളത്തരങ്ങൾ കാണിക്കുമോ ആക്രമണങ്ങൾ കാണിക്കോ എന്ത് കാണിച്ചാലും അതിലെ തെറ്റ് ഏത് വശത്താണോ ആ വശത്തെ ശരിയേത് വശത്താണോ അവരെ ന്യായീകരിക്കുകയും തെറ്റായ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യും അങ്ങനെയുള്ള നല്ല ഒരു നാട്ടുകാരുമാണ് നമുക്കുള്ളത് പിന്നെ മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കുട്ടികളാകുമ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളോടാണ് കൂടുതൽ ഒരു ശകലം സ്നേഹക്കൂടുതൽ തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തേലും സംഭവിച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികളൂടെ നിൽക്കുന്നു പക്ഷേ നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ സപ്പോട്ട് ചെയ്യത്തില്ല അങ്ങനെ ഒരു നല്ല നാടാണ് നമ്മുടെ നാട്